നടുവേദന സ്വാഭിഗാന ഞങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾ കിഴികുത്തും എണ്ണയും എണ്ണ കിഴി അതായത് മുറിവെണ്ണയോ ഇല്ലെങ്കിൽ കുഴമ്പ് ഒക്കെ പുരട്ടി തേച്ചു ഞങ്ങൾ കിഴി കുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് പച്ചമരുന്ന് ഉപയോഗിച്ചു ഞങ്ങൾ കിഴി കൂത്തും അപ്പം അതിൽ പച്ചമരുന്ന് മെയിനായിട്ടുള്ളത് ആവണക്കണ്ണൻ്റെ ഇല പിന്നെ ആവണക്കണ്ണൻ്റെ ഇല കരിന്നെച്ചി ഇല മുരിങ്ങ ഇല പിന്നെ വാതക്കൊടി ചെറുന്നാരങ്ങ തേങ്ങ ചുരണ്ടിയത് ഉപ്പ് ശകലം ഉപ്പും ഉപ്പ് കല്ലും കൂടെ ചേർത്തു പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കരിന്നെച്ചി ഈലയുടെ കൂടെ ഇതെല്ലാം കൂടെ ഓരോ പിടി എടുത്ത് അരിഞ്ഞു വച്ചു ഒരു തുണിയിൽ കോട്ടൺ തുണിയിലോട്ട് അരിഞ്ഞിട്ട് വച്ചു അതിൻ്റെ കൂട്ടത്തിൽ ഈ തേങ്ങയും പീരയും തേങ്ങാ ചുരണ്ടിയതും ചെറുനാരങ്ങ നാലായിട്ട് കീറിയതും ഇട്ട് ഇത്തിരി ഉപ്പും കൂടെ ഇട്ട് ഉപ്പും കൂടി ഇട്ട് കിഴി ഒരു ആ തുണിയിൽ നിന്ന് തന്നെ ചെറിയ പീസ് മുറിച്ചു മുറുക്കി കെട്ടിയേച്ചു കടുക് എണ്ണയും പിന്നെ നല്ലെണ്ണയും ആവണക്കണ്ണയും എല്ലാം കൂടി ഒഴിച്ചു ചെറു തീയിൽ ഇത് തിളച്ചു വരുമ്പം ചീനച്ചട്ടിയിൽ വച്ചു തിളച്ചു വരുമ്പോൾ അതിനകത്തോട്ട് ഈ തുണിയിൽ കെട്ടി വച്ചങ്ങ് കിഴി അങ്ങോട്ട് മുക്കും എന്നിട്ട് നടുവേദനയുള്ള ആളെ മേശയുടെ പുറത്ത് കമിഴ്ത്തി കിടത്തിയേച്ചു മുറുവെണ്ണയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഴമ്പോ പുരട്ടിയേച്ചു നല്ല പോലെ മസാജ് ചെയ്യും മസാജ് ചെയ്യുമ്പോഴേക്ക് ഈ തിളച്ച എണ്ണയിൽ കിടക്കുന്ന കിഴി എടുത്ത് പയ്യെ പയ്യെ കുത്തി കുത്തി കഴുത്തിൻ്റെ അവിടം തുടങ്ങി കുത്തി കുത്തി കാലിൻ്റെ ഉള്ളങ്കാല് വരെ പൊള്ളാതെ ചെറു തീയിൽ വച്ചു കൊണ്ട് ഒരു അര മുക്കാൽ മണിക്കൂർ അങ്ങനെ ചെയ്തു ആ എണ്ണ തൂത്ത് കളഞ്ഞു പിന്നെ മനുഷ്യർ കുളിക്കുക അങ്ങനെ ഒരു ആറ് ഏഴ് ദിവസം ചെയ്തു കഴിയുമ്പം നല്ലതുപോലെ മനുഷ്യർക്ക് നല്ല ആശ്വാസം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ കിഴി ഉപയോഗിച്ചു അമിക്കി അമിക്കി വട്ടത്തിൽ വട്ടത്തിൽ കറക്കി കറക്കി തിരുമ്മുകയും കൂടെ ചെയ്താൽ ഒത്തിരി നല്ലതാണ് ഇപ്പോഴുള്ള മനുഷ്യർക്ക് അത് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ ഞങ്ങൾ സാധാരണ കുറുന്തോട്ടി വാതക്കൊടി കൊടിയുടെ ഇല പ്ലാവ് ഇല പേര ഇല അങ്ങനെയുള്ള ഇലകളെല്ലാം കൂടെ ഇട്ട് വെള്ളം തിളപ്പിച്ചു അത് മുക്കി ചൂട് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മെയിനായിട്ടും ഈ കിഴിയാണ് ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് അത് ഒരു ദോഷവും ഇല്ല ഗുണമല്ലാതെ ദോഷം ഒന്നുമില്ല മനുഷ്യർക്ക് ഇന്നുള്ള മനുഷ്യർക്ക് അതൊക്കെ ചെയ്യാൻ പാടാണെങ്കിലും എന്നാൽ കുറച്ചു മനുഷ്യർ ഇപ്പം ഈ ഇങ്ങനെ ഈ ഇംഗ്ലീഷ് മരുന്ന് വേണ്ടന്ന് വച്ചു ഈ ആയുർവേദത്തിലേക്ക് മടങ്ങുന്നുണ്ട് ഞങ്ങൾ ണ്ട് എൻ്റെ എൻ്റെയൊക്കെ ചാച്ചനൊക്കെ ഇങ്ങനെയുള്ള കിഴികളും എല്ലാം ഉണ്ടാക്കാൻ അറിയാം തിരുമ്മും അറിയാം ഒടി വച്ചു അത് അങ്ങനെയുള്ള എല്ലാം വച്ചു കെട്ടാനുള്ള ഇതെല്ലാം അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ ഇത് കണ്ടു പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പം ഞങ്ങളുടെയൊക്കെ ആവശ്യങ്ങൾ അത്യാവശ്യം അടുത്തുള്ള ആളുകൾ ചെറിയ പച്ച മരുന്നുകളെല്ലാം ഞങ്ങൾ ഇത് ചെയ്യാറുമുണ്ട്